അതായത് ഇപ്പോള് നമ്മുടെ ഭിന്നമതങ്ങളും അതേപോലെ സമൂഹങ്ങളും തമ്മില് ഐക്യം പുലർത്താൻ വേണ്ടിയിട്ട് സ്നേഹം അതുപോലെ സഹിഷ്ണുത ബഹുമാനം എന്നിവ അത്യാവശ്യമാണ് കാരണം പരസ്പരസ്നേഹം ഉണ്ടെന്നുണ്ടെങ്കില് സ്നേഹവും അതുപോലെ ബഹുമാനവുമുണ്ടെങ്കില് മാത്രമേ നമുക്ക് സമൂഹത്തില് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ അതായത് പല മതസ്ഥരായിക്കോട്ടെ ഈ സമൂഹത്തില് ഇതുപോലെയുള്ള ബഹുമാനവും സഹിഷ്ണുതയും പുലര്ത്താന് പറ്റുന്നവർക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ ഇപ്പോള് നമ്മളോരോ സമൂഹത്തെയും അവരുടെ സംസ്കാരത്തെയും അംഗീകരിക്കുമ്പോള് ഇപ്പോള് ഓരോരുത്തര്ക്കും വ്യത്യസ്ത സംസ്കാരങ്ങളും അതുപോലെ ഈ സമൂഹത്തില് ജീവിക്കുന്ന ആൾക്കാർക്ക് വ്യത്യസ്ത സംസ്കാരങ്ങളുമൊക്കെയാകും അപ്പോള് അത് ആ സംസ്കാരത്തെയൊക്കെ നമ്മള് നമ്മള് അംഗീകരിക്കുമ്പോഴേ ഒരു ഐക്യം ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ അതായത് അവരുടെ സംസ്കാരത്തെ നമ്മള് ബഹുമാനിക്കുമ്പോള് മാത്രമേ നമ്മുടെ കൂട്ടത്തിലൊരു ഐക്യം നിലനിര്ത്താൻ പറ്റുകയുള്ളൂ അതുപോലെ വൈവിധ്യം അധീന സംസ്കാരത്തിലെ പാരമ്പര്യങ്ങളിലും ഉത്സവങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നു അതായത് നമ്മുടെ അതുപോലെ ഈ സംസ്കാരത്തിൻ്റെ ഈ ഇന്ത്യയുടെ വൈവിധ്യം അതുപോലെ നമ്മുടെ ഈ സംസ്കാര പാരമ്പര്യങ്ങളിലും ആ ഉത്സവങ്ങളിലുമൊക്കെ നമുക്കത് വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ സാധിക്കും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനുഷ്യ ജീവിതങ്ങളിലൊക്കെ സമാജങ്ങളിലൊക്കെ ഓരോ കാര്യങ്ങള് നമുക്ക് കാണാൻ കഴിയുന്നത്